ആ എന്താ സാർ അതെ ആ കിട്ടിയിരുന്നു ഇല്ല സാർ ഞാനാ ഞാൻ എല്ലാ പണിയും ചെയ്യുന്നുണ്ട് അവിടുത്തെ വെറുതേ പറയുന്നതാണ് എന്തുട്ടാ പറയുന്നത് ഇല്ല സാർ ഞാൻ ഒരു എട്ട് മണിക്ക് അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഫുൾ പണിയും ചെയ്തുതീർത്ത് പിള്ളേരെ സ്കൂളിൽ വിട്ടതിന് ശേഷം ആണ് ഞാൻ കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ടും ആ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ആണ് ഞാൻ വൈകീട്ട് വീട്ട് വീട്ടിലേക്ക് പോകുന്നത് വളരെ ലേറ്റ് ആയിട്ട് ആണ് ഞാൻ പോകുന്നത് ഞാൻ ഇതുവരെയും പറയാണ്ട് ഇരുന്നതാണ് എൻ്റെ അടുത്ത് അവിടെ വളരെ പൊട്ട രീതിയിൽ പെരുമാറിയത് കാരണം ഒരു ദിവസം ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ദേഷ്യത്തിൽ ആണ് അവർ ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്നതെന്ന് എനിക്ക് വേറെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ പണിക്ക് നിൽക്കാൻ അല്ലാണ്ട് അതാണ് ഞാൻ എല്ലാം സഹിച്ച് ഇവിടെ നിന്നത് പണിക്ക് പക്ഷേ ഒരു വീട് വേറെ കണ്ടു പിടിക്കാൻ ആയിട്ട് പണിക്ക് വേണ്ടി കണ്ടു പിടിക്കാൻ ആയിട്ട് വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ലേ അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പാടും സഹിച്ച് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചത് ഞാൻ വിചാരിച്ചു അങ്ങനെ പറ്റത്തില്ല എന്ന് അതാണ് ഞാൻ ഇവിടെ എല്ലാം സഹിച്ച് നിന്നത് ആ ഉണ്ട് ആ രണ്ട് പ്രാവശ്യം പക്ഷെ അതിന് ശേഷം അത് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എല്ലാ പണിയും ചെയ്യുന്നുണ്ടായിരുന്നു നു പക്ഷെ കംപ്ലൈന്റെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നു

ഇല്ല ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല